പല പലാ പല പലാ രാജ്യത്തേ സ്റ്റാമ്പുക്കളും നമ്മുടെ രാജ്യത്തെ സ്റ്റാമ്പുകളും എല്ലാം ഞാനിങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് പണ്ടത്തെ സ്റ്റാമ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമറിയത്തില്ല അപ്പോൾ എന്താ ഞാൻ തീർന്നതു എൻറ്റെ കുഞ്ഞു മക്കൾക്കും തലമുറകൾക്കുമായിട്ട് വേണ്ടിയാണ് ഞാനതിനകത്ത് പണ്ട് പണ്ടുള്ള നാണയങ്ങളും കല്ലുകളും എല്ലാം ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വെള്ളാങ്കണ്ണി മധുര അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്നുള്ള അവിടെ നിന്നു കിട്ടുന്ന കല്ലുകളും നാളയങ്ങളും അങ്ങനെ ഉള്ള വിൽക്കാതെ ഈ സാധനങ്ങളൊന്നും വ്യാപാരം നടത്താൻ വേണ്ടി അല്ല ഞാനിതെല്ലാം ശേഖരിക്കുന്നത് എൻറ്റെ പിൻ തലമുറകൾക്ക് കുഞ്ഞു മക്കൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുവാനും അവരിലത് അവരത് സ്വീകരിക്കുവാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതു കണ്ടവർ ഇന്നിപ്പം പണ്ടത്തെ നാണയം ഒരു രൂപ ഇരുപത് പൈസ അഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ അങ്ങനെയുള്ള എല്ലാം മൂല്യമൊന്നുമില്ലാതെ അതിനേപ്പറ്റി ആർക്കുമൊന്നുമറിയരുത് അറിയാൻ പഴാ അറിയില്ലാതെയുമായിട്ടാണ് ഇരിക്കുന്നത് അതു കൊണ്ടാണ് ഞാനെവിടെപ്പോയാലും ഇങ്ങനെ അമൂല്യമായ എന്തു സാധനം കിട്ടിയാലും കൊണ്ടു വന്ന് വീട്ടിൽക്കൊണ്ടു വന്ന് വെക്കും അത് കുഞ്ഞുങ്ങളേ കാണിക്കുകയും നിങ്ങൾക്ക് ഇതൊന്നുമറിയത്തില്ല നിങ്ങളിങ്ങനെയുള്ള ഇതൊന്നും കണ്ടിട്ടില്ല അഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ നാണയം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല അതു കൊണ്ടാണ് ഇതെല്ലാം ഞാൻ മക്കൾക്കു വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഇത് വിൽക്കാനോ വ്യാപാരം ചെയ്യാനോ അല്ല ഇത് ഉപയോഗിക്കുന്നത് ഇതെല്ലാം അടുത്ത തലമുറയ്ക്കു വേണ്ടിയാണ് വെക്കുന്നത് അമൂല്യമായ എന്താണെങ്കിലും അങ്ങനെ അങ്ങനെയാണ് വെക്കുന്നത് നമ്മൾ എന്ത് ഇങ്ങനെയുള്ള എന്ത് എന്തു കണ്ടാലും ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് പൈസയില്ല ഇരുപത് വയസ്സായില്ല അഞ്ച് പൈസയില്ലാ അന്നൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ നാണയം നമ്മൾ സൂക്ഷിച്ചു വെക്കും നമുക്ക് നമ്മുടെ കാർണവന്മാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളത് കണ്ടു ഇനിയിപ്പം നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് പോകുന്നത് ഞാൻ വെള്ളാങ്കണ്ണി കന്യാകുമാരിയിൽ അവിടെയൊക്കെ ചെന്നപ്പം കിട്ടിയ കല്ലുകളും അതെല്ലാം അമൂല്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ് സൂക്ഷിച്ച് വെച്ചിട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് അതിനേപ്പറ്റി പഠിക്കാനും എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനങ്ങനെയെല്ലാം ചെയ്യുന്നത് എൻറ്റെ വീട്ടിൽ ഈ വക സാധനങ്ങളെല്ലാം ഉണ്ട് വന്നു നോക്കുമ്പോൾ കാണാവുന്നതു പോലെ കൊച്ചു മക്കൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്നതിന്നതിന്ന രാജ്യത്തു നിന്നു കൊണ്ട ഇന്നയാ സ്ഥലത്തു നിന്നു കൊണ്ടു വന്നതാണെന്നെല്ലാം പറഞ്ഞു കൊടുത്തും പെറുക്കിയെല്ലാമാണ് ഞാൻ ഇരിക്കുന്നത് അത് അതെല്ലാം ഒന്നും വിൽക്കുവാനോ വിറ്റ് പൈസ വാങ്ങിക്കാനോ ഒന്നുമല്ല അതെല്ലാം തലമുറകൾക്കായിട്ട് അവർക്കു വേണ്ടി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്കു കാണിച്ചു കൊടുക്കുകയും അവർ ഇതു കണ്ട് അവർ ഈ അവരുടെ തലമുറയാകുമ്പോഴേക്കും ഇതിലെല്ലാം എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങളൊക്കെ കണ്ടു പിടിച്ച് അവരത് അതിലെന്തെങ്കിലും മൂല്യങ്ങളുണ്ടോ എന്നെല്ലാം നോക്കി കണ്ടു പിടിച്ച് പഠിക്കട്ടെ ഇതെല്ലാം നല്ലയൊരു പാഠം ഇരിക്കട്ടെ അത് കാരണം കുട്ടികൾക്കു വേണ്ട എല്ലാം നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്